സർ ഹലോ അ പിന്നെ എനിക്കൊരു വീട് വാടകയ്ക്ക് വേണമായിരുന്നു ഇവിടെ ഈ പരിസരത്ത് തന്നെ ഞാൻ ചന്നനോടാണ് അപ്പം അ ഹോസ്പിറ്റൽ ഞാൻ ഇതിന് മുൻപ് വിളിച്ചിരുന്നു അസുഖം അല്ല ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ വർക്ക് ചെയ്യുന്നത് ആണ് അപ്പം അ അ ഞാൻ അവിടെ സ്കിൻ കെയറിൻ്റെ അവിടെ പറഞ്ഞിരുന്നു അ പിന്നെ അമൃതാ ഹോസ്റ്റൽ

അ അ അവിടെ പിന്നെ അമൃതാ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ആയിട്ടാണ് എൻ്റെ ഇത് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് അപ്പം അവിടെ ആയിരിക്കും കുറച്ച് കൂടെ സൗകര്യം മീൻസ് അ അ അ അ അ അ താല്പര്യം ഉണ്ട് എനിക്ക് കുറച്ച് കൂടെ സൗകര്യം അവിടെ ആയിരിക്കും ഇല്ല അമൃതയിൽ തന്നെ ഫിക്സ് ചെയ്യാം അ അ

അ അപ്പം എനിക്ക് ഈ സൺഡേ ലീവ് ആണ് അപ്പം അന്ന് ബുക്ക് ചെയ്തോളു അ അതെ അതെ അ സൺഡേ അ ഓക്കേ ഓക്കേ താങ്ക്യൂ